ഇന്ത്യയിലെ കലാകാരന്മാർക്ക് അങ്ങനെ അവസരങ്ങളൊന്നും കിട്ടാറില്ല എന്നു പറഞ്ഞാൽ ഒരു ഭാഗം ആൾക്കാർക്ക് അവസരം കിട്ടാറുണ്ട് എന്നാ ഒരു ഭാഗം ആൾക്കാർക്ക് അവസരം കിട്ടാറുമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരെ ഒന്നും സമൂഹം അങ്ങ് അംഗീകരിക്കില്ല ചിലപ്പോൾ നാടൻ കലകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊന്നും സമൂഹം അംഗീകരിക്കില്ല ഇപ്പോൾ എല്ലാവർക്കും പുതിയ ട്രെൻഡിലുള്ള കലകളാണ് ആവശ്യം അപ്പോൾ അതു ചെയ്യുന്നവരെ സമൂഹം അംഗീകരിക്കും ബാക്കി ഉള്ളവരെയൊന്നും അംഗീകരിക്കില്ല അവരെത്ര നല്ലത് ചെയ്താലും അതു പോരയെന്ന് പറയുകയുള്ളൂ അപ്പോൾ നമ്മൾ അവർ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ നമ്മളുണ്ടാക്കിക്കൊടുക്കണം അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തു തരാം അല്ലെങ്കിൽ അവരുടെ കലകളെ അവരെത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഈ കലകൾ ഓരോന്ന് ഉണ്ടാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ അതു മനസ്സിലാക്കിയിട്ട് വേണ്ടേ നമ്മൾ ചെയ്യാൻ അപ്പോൾ ഒരു ആൾക്കാർ ഇതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ല അത് നന്നാക്കി എടുക്കാനോ അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനകളൊന്നും ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല അപ്പോൾ അതൊക്കെ മുന്നോട്ടു കൊണ്ടുവന്ന് സമൂഹത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം